ഇപ്പോൾ കേരളത്തിൽ വിദ്യാഭ്യാസം കൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലുള്ള വെല്ലുവിളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം എന്നു വച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പഠിക്കുന്നതിന് അനുസരിച്ചുള്ള നമുക്ക് ജോലി കിട്ടില്ല അങ്ങനത്തെ പല രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഇപ്പോൾ എം എ പഠിച്ചവരുണ്ട് ബികോം പഠിച്ചവരുണ്ട് ബി എ പഠിച്ചവരുണ്ട് അങ്ങനെ പല രീതിയിലും പഠിച്ചവരൊക്കെ ഉണ്ടാവും ഇപ്പം പി എച്ച് ഡി എടുത്തവർ വരെയൊക്കെ ഉണ്ടാവും ഇപ്പം അതായത് ഇപ്പം നമ്മളെ എഞ്ചിനീയറിംഗ് ബിടെക്ക് അങ്ങനത്തെ പഠനം കഴിഞ്ഞവർ ഇഷ്ടംപോലെ ഉണ്ടാവും കാരണം എന്നു വച്ചു കഴിഞ്ഞാൽ ഇവർക്കൊന്നും മെയിനായിട്ട് ജോലിയും കാര്യങ്ങളൊന്നും നമ്മുടെ കേരളത്തിൽ എവിടെയും കിട്ടുന്നില്ല ഇപ്പം നല്ലൊരു അവസരവും കാര്യവും ഒന്നും എവിടെയും ഇല്ല അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വന്ന സമയത്ത് ഇവർക്ക് ഒരു ജോലിയും കാര്യങ്ങളൊന്നുമില്ല അങ്ങനത്തെ പല രീതീലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം തൊഴിലില്ലായ്മയാണ് മെയിനായിട്ട് കേരളത്തിൽ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം എന്നു വേണമെങ്കിൽ പറയാം ഇപ്പം ബിരുധാനന്തരമൊക്കെ പഠിച്ചവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലിയും കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പോൾ സാമ്പത്തികമായിട്ടും അവർക്ക് ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സാമ്പത്തികമായിട്ടൊക്കെ മുന്നോട്ട് വേണ്ടി നിൽക്കാൻ വേണ്ടിയിട്ട് സാധിക്കുളു അപ്പോൾ അതൊക്കെ മെയിനായിട്ടുള്ളൊരു പ്രശ്നമാണ് ഇപ്പോൾ എല്ലാവരും ഓരോരുത്തർ സഹായം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അഭ്യർത്ഥിക്കുന്നുണ്ടെങ്കിലും അതൊന്നും നമുക്ക് ശാശ്വതമായിട്ടുള്ള ഒരു കാര്യമല്ല അപ്പോൾ മെയിനായിട്ട് വിദ്യാഭ്യാസം എന്നു പറഞ്ഞാൽ നല്ല രീയിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് വേണ്ടത്